ഹലോ സൂര്യാസ് ടൂ വീലർ റെൻ്റൽ ബൈക്ക് ആണ് എറണാകുളത്തു നിന്ന് എന്നായിരുന്നു ഓക്കെ ബൈക്ക് ആ ഓക്കെ ഏത് ടൈപ്പ് ആണ് ടൂ സ്ട്രോക്ക് ആണോ അതോ സ്പോർട്സ് ബൈക്ക് പോലത്തെ ആണോ ഹിമാലയയ്ക്ക് വൺ ഡേ ആണെങ്കിൽ സിക്സ് തൗസൻ്റ്

ആ അത് തരേണ്ടിവരും ആ ത്രീ തൗസൻ്റ് തരേണ്ടിവരും

പിന്നെ ലൈസൻസ് ആധാർ നമ്പർ അത് രണ്ടും മതി

എത് എത്ര ദി ഞങ്ങൾ മാനന്തവാടി ആ ബീവറേജിന്റെ അപ്പുറത്തായിട്ട് വരും ഓക്കെ എത്ര ദിവസത്തേക്കാണ് അത് കുഴപ്പം ഇല്ല അത് ഇത്ര ലിമിറ്റ് എന്നുള്ളൂ

കുറച്ച് കോഴിക്കോട് പോവാം ഇല്ല വയനാട് വിട്ട് ഒരു ജില്ല വരെ പോവാം മറ്റന്നാൾ ഓക്കെ ഹിമാലയൻ മാത്രം മതി ഒരെണ്ണം മതി മൂന്ന് ഹിമാലയ അല്ലേ ആ ഓക്കെ ബൈക്ക് ഉണ്ട്

ആധാർ കാർഡ് ലൈസൻസും ഇല്ല രണ്ടിന്റെയും ഫോട്ടോസ്റ്റാറ്റ് മതി ആ ഓക്കെ ആ മറ്റന്നാൾ വന്നിട്ട് വിളിച്ചാൽ മതി ഓക്കെ ഏ ആ ഉണ്ട് ഉണ്ട് ഓക്കെ എന്നാൽ ആ ഓക്കെ അല്ല താങ്കളുടെ പേര് ഒന്ന് പറയുവോ ഓക്കെ ബാക്കി രണ്ടുപേരുടെയും കൂടെ പേര് ആ ഓക്കെ അപ്പോൾ അപ്പം പേര് തന്നാൽ മതി എന്നാൽ